ആ മറ്റേ തങ്കച്ചാ എന്താ വിളിച്ചത് പോലും

ഓ അത് ഏപ്പോഴത്തെനാകും പോലും വേണ്ടത് ഏഴുമണിയാകുമ്പോഴത്തേനും ആ അതെയോ മ് മ് മ് മ് ആ അത് അത് എന്തൊക്കെയാണ് വേണ്ടത് ഉം ഉം ഉം ആ പത്തിരിയല്ലേ ആ അതെ അല്ലേ ആ ആ ആ ഉം ആറര ആകുമ്പത്തേനും അല്ല ഇത് പ്രാര്ത്ഥന പ്രാര്ത്ഥന തീരാറാകുമ്പത്തേനും പോരെ ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നല്ല ചൂടോടെ തന്നെ കൊടുക്കാന് പറ്റും

അപ്പോൾ ഞാനത് പിന്നെ വിത്തൌട്ട് ഒരു കെറ്റിലില് വിത്ത് ചായയും രണ്ടും ഓരെ കെറ്റിലിനകത്താക്കി എ അത് തന്നെ അല്ലാതെ പിന്നെ ഈ പത്തിരി നല്ല ചൂടോടെയാണെങ്കിൽ അത് കുഴപ്പം ഇല്ലല്ലൊ ആ ആ നാളെ നാളെ അത് ഉണ്ടാക്കി തരാം ഉണ്ടാക്കി തരുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല പിന്നെ ഇച്ചിരി പൈ പൈസ ഇത്തിരി എത്തിക്കുകയാണേൽ ഏറ്റവും നല്ലതായിരുന്നു കാരണം നമ്മുടെ

കുറേ ആ കുറവ് ഉം ആ അത് അതങ്ങനെ ഉം ആ അതാണ് ഏത്തയ്ക്കാ മേടിക്കാനായിട്ട് ഏത്തയ്ക്കാ ഏത്തയ്ക്കാ മേടിക്കുന്നവർ റെഡി പൈസ കൊടുക്കാതെ പറ്റില്ല ആ ആ ആ ആ ഒപ്പം അത് വെച്ച് കൊടുക്കാം അതിനു കുഴപ്പം ഒന്നും ഇല്ല പിന്നെ ഞാന് ഓട്ടോയ്ക്ക് കൊടുത്ത് വിട്ടാൽ മതിയോ അതോ ആ മതി ഓട്ടോയ്ക്ക് കൊടുത്ത് വിടാം ഓട്ടോയ്ക്ക് കൊടുത്ത് വിടാം അതെ പൈസ ആ ആയിക്കോട്ടെ ആ ഞാനത് പ്രതീക്ഷിക്കും അതനുസരിച്ചേ ഞാൻ കാര്യങ്ങള് നീക്കുക അപ്പോൾ ഞാൻ ആ ആ വേണം വേണം അത് കൊണ്ടുവന്ന് തരാം അതൊന്നും കുഴപ്പം ഇല്ലായിരിക്കും നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞത് പോലെയല്ലേ അത് മാറ്റമൊന്നുമില്ല ആ ഉം ഉം ആ അതെ താ അതായത് അയ്യോ ഞാൻ ആ കാര്യമങ്ങ് മറന്നു പോയായിരുന്നു ശരി ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല അതോര്പ്പിച്ചത് നന്നായി കേട്ടോ ഓര്പ്പിച്ചത് നന്നായി മ് മ് മ് മ് ആ അത് കുഴപ്പമില്ല എത്ര പിന്നെ വിത്തൌട്ട് എത്ര ചായ എന്നാണ് പറഞ്ഞത് പത്തോ അ ഹ ഹ ഹ ഹ അ എന്നാൽ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആ ആ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല പിന്നെ ഉം അതിന് കുഴപ്പമില്ല ആ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തതിന് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കും മറ്റേ വേറെ കൂട്ടായ്മ ഇതുപ്പോലെ അവർ പറഞ്ഞായിരുന്നോ അന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ഉം ഉം ഉം ഉം

ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല അത് നമ്മൾ അങ്ങനെ അല്ലേ ചെയ്യുകയുള്ളു ഓക്കേ ആയിക്കോട്ടെ ഉം ശരി